ഒരു എഴുത്തുകാരനുണ്ടാകുന്ന ഉത്കണ്ഠ എന്ന് പറഞ്ഞാൽ തന്നെ അദ്ദേഹത്തിൻ്റെ കഴിവിനെ കുറിച്ചുണ്ടാകുന്ന സംശയവും തന്നെ ആയിരിക്കും ഒരു എഴുത്തുകാരൻ്റെ സംശയം അദ്ദേഹത്തിൻ്റെ എഴുത്ത് മോശമാവുമോ എന്നുള്ള ഒരു പേടി അദ്ദേഹത്തിനെപ്പോഴും ഉണ്ടാകും ഒരു എഴുത്തുകാരനെപ്പോഴും ഉണ്ടാവും ഒരു എഴുത്തുകാരൻ താൻ എഴുതിയ എഴുത്ത് അത്ര പോരായെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം തന്നെ അവിടെ നഷ്ടപെടുന്ന കാര്യമാണ് ആ സംഭവം ഞാനൊക്കെ എഴുതുന്ന കാലം തൊട്ട് തന്നെ എത്ര നന്നായി എഴുതിയാലും എനിക്ക് തന്നെ ഒര് തൃപ്തിയാകാത്ത ഒരു സാഹചര്യമുണ്ടാകാറുണ്ട് അത് എല്ലാ എഴുത്തുകാർക്കും ഉണ്ടായിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത് ഞാൻ എഴുതി കഴിഞ്ഞ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വിശദീകരിച്ച് കൊടുക്കുന്ന ഒരു അത് വിശചീ വിശദീകരിച്ച് കൊടുക്കാൻ ഇഷ്ട്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ എന്നെ എഴുത്തിനൊക്കെ എഴുത്ത് ഞാൻ എഴുതുന്നത് ഇഷ്ടപ്പെടുന്ന ആളുകളാണ് എൻ്റെ അച്ഛനും അമ്മയും അവരാണ് എന്നെ എഴുത്തിലേക്ക് പിന്തുണക്കാറുള്ളത് നീ എഴുതൂ എന്നൊക്കെ പറഞ്ഞ് നീ എഴുതാൻ എന്നെ പ്രചോ പ്രചോദിപ്പിക്കാനും എനിക്ക് ആത്മവിശ്വാസം തരാനും അവർക്ക് അവരുടെ പങ്ക് വളരെ വലുതാണ് എൻ്റെ എഴുത്തൊരിക്കലും അങ്ങനെ അത്ര പോരാന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല തോന്നിയിട്ടുണ്ടെങ്കിൽ തന്നെ ഞാൻ അത് മാറ്റി എഴുതും എന്നെ എൻ്റെ കൂട്ടുകാരൊക്കെ വളരെ നല്ല രീതിയിലായിരുന്നു പ്രചോദിപ്പിച്ചിട്ടുള്ളത് എൻ്റെ എഴുത്തിനെക്കുറിച്ചും എൻ്റെ കവിതകളെ കുറിച്ചും ഒക്കെ